കൃഷിയിടത്തിൽ വീട്ടുജോലി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് സ്വയം പാട്ടൊക്കെ പാടാറുണ്ട് അതേപോലെ അങ്ങനെ അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ അത് ആ ജോലിയും നമുക്ക് ആയാസകരമാവും നമുക്ക് വ വലിയ ഭാരപ്പെട്ടതായിട്ട് തോ തോന്നാറില്ല അപ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ ആയാസമുള്ളതായിട്ട് തോന്നാറില്ല അതേപോലെ നാടൻപാട്ട് പാ നാടൻപാട്ടൊന്നും ആയിരിക്കില്ല പാടാറ് ഇതേപോലെ എന്തെങ്കിലും അല്ലാതെ സിനിമ പാട്ടോ അങ്ങനെത്തെ ഒക്കെയാണ് കൂടുതലും പാടാറുള്ളത് അപ്പോൾ അല്ലാതെ ടി വിയിൽ കണ്ടിട്ടുണ്ട് ഇതേ കണക്ക് കൃഷി ചെ അങ്ങനെ ജോലി ചെയ്യുന്നവർ നാടൻപാട്ട് അതായത് പാട്ടൊക്കെ പാടി ചെയ്യുന്നത് അതായതിപ്പോൾ നെ ഈ നെൽ കൃഷി ചെയ്യുന്ന സമയത്ത് അതിൻറേതായ പാട്ട് കാണും ഈ നെൽ നെൽ വയൽ വയൽ പാടുന്ന നാടൻപാട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതേപോലെ അല്ലാതെ പാട്ട് അല്ലാതെ സിനിമ പാട്ട് അങ്ങനെ എന്തെങ്കിലും പാടി പാടി അങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് ആയിരിക്കും കൂടുതലും ചെയ്യാറുള്ളത്